ഇപ്പോൾ കോഴിക്കോട് ജില്ലയില് പല രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമ്മളിപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഇപ്പോൾ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല അങ്ങനത്തെ പൊതു അറിയിപ്പുകള് കാര്യങ്ങളൊക്കെ നമ്മള് കോഴിക്കോട് ജില്ലയില് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഈ വേസ്റ്റ് ഇടുന്നു എന്ന് പറഞ്ഞാൽ നമ്മള ബീച്ച് ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത് കാരണമെന്ന് വെച്ചു കഴിഞ്ഞാല് അവിടുന്ന് അതായത് നമ്മളവിടെ എന്താ പറയുക ഈ കോഴി വേസ്റ്റാണ് കൂടുതലായിട്ട് ഇവര് ഈ ബീച്ചിലേക്ക് ഒഴുക്കിവിടുന്നത് അപ്പോൾ അത് നമ്മള് പൂർണ്ണമായിട്ടും തടയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഉള്ള സർക്കാര് അതായത് നഗരസഭാ കാര്യങ്ങ അവരൊക്കെ തടയാൻവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ബീച്ചില് നല്ല രീതിയിലുള്ള മാലിന്യം നിറയുന്നുണ്ട് പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മളത് തടയാൻവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നല്ല രീതീല് നടക്കാൻവേണ്ടീട്ട് നമ്മള് നല്ല രീതീലുള്ള പ്രവർത്തനങ്ങളും കാര്യളൊക്കെ കാഴ്ച വെക്കാറിണ്ട് പിന്നിവിടെ കൂടുതലായിട്ടും കുറെ ചാരിറ്റബിൾ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹുദാസുന്നി മദ്രസ അങ്ങനത്തെ പല പരിപാടികളും വിദ്യാ എന്താ പറയുക ഇപ്പം മുസ്ലീം വിഭാഗത്തിൽ പെട്ടവർക്കൊക്കെ നല്ല രീതിയിലുള്ള പരിപാടികളൊക്കെ കാഴ്ച വെക്കാൻ വേണ്ടീട്ട് സാധിക്കുന്ന പല രീതിയിൽ ഉള്ള ചാ ചാരിറ്റബിൾ ട്രസ്റ്റ് കാര്യങ്ങള്ളൊക്കെ ഇവിടുന്ന് ഉണ്ട്